ലക്ഷങ്ങൾ പണ്ട് ഇന്ത്യയിൽ വ്യവസായവും വിനോദ വ്യവസായവും ആൾക്കാർ കൂടുതൽ കാണാനിഷ്ടപ്പെടുന്നതും നമ്മുടെ സിനിമ തന്നെയാണ് സിനിമയാണ് ഓരോ വർഷം തോറും അവർ ഓരോ രീതിയിലാണ് സിനിമകൾ ഇറക്കുന്നത് പണ്ടത്തെ പഴയ കാലത്തെ ബ്ലാക്ക് ആന്റ് വൈറ്റ് സിനിമയല്ല ഇപ്പോൾ ഇറങ്ങുന്നത് പണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ കഥാമൂല്യമുള്ള സിനിമകളായിരുന്നു അതിനകത്തെ പാട്ടിനും ഡാൻസിനുമായാലും ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഫീലിങ് നമ്മുടെ മനസ്സിലുണ്ട് ആ ഒരു ഒരു സിനിമ കാണുമ്പോൾ അതെങ്ങനെയാണന്നും അത് എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പണ്ടുള്ള സിനിമകളിൽ അത് അറിയാൻ പറ്റും പക്ഷെ അന്നത്തെ കാലത്തെ സിനിമ പോലെയല്ല ഇപ്പൊഴത്തെ സിനിമ ഇപ്പൊഴത്തെ സിനിമയിൽ നമ്മളുടെ ആൾക്കാരുടെ ടീനേഴ്ജസിൻ്റെ എന്നുവെച്ചാൽ കൗമാര പ്രായക്കാരുടെ ഇഷ്ടം പറ്റുക ഫാൻസുകാരെ കൊണ്ട് വിജയിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴത്തെ സിനിമയിൽ നടക്കുന്നുള്ളൂ പണ്ട് കാലത്തെന്ന് വെച്ചാൽ സിനിമകൾ ഇറക്കുന്നത് എന്നുവെച്ചാൽ അവരുടെയൊരു എന്താപറയുക അവരുടെയൊരു കഴിവും അവരുടെ കാര്യങ്ങൾ എല്ലാംകൂടെ ഉൾ ക്കൊണ്ടുകൊണ്ടായിരുന്നു പണ്ട് സിനിമ ഇറക്കുന്നത് ഇപ്പം കഴിവുള്ളവരുണ്ട് നല്ല നല്ല സിനിമകളും ഇറങ്ങുന്നുണ്ട് പക്ഷെ അതുപോലെയല്ല പിന്നെ ഒരുപാട് സിനിമകളും മോശപ്പെട്ട സിനിമകളും ഇറങ്ങുന്നുണ്ട് പക്ഷെ പണ്ടുള്ള കാലങ്ങളെന്ന് വെച്ചാൽ ഒരു പത്ത് സിനിമ ഇറങ്ങിയാൽ അതിനകത്ത് അഞ്ചും ആറും സിനിമകളും ഹിറ്റായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു അഞ്ച് സിനിമ ഇറങ്ങിയാൽ ഒന്നോ രണ്ടോ സിനിമ മാത്രമേ അതിനകത്ത് ഹിറ്റാവുന്നുള്ളൂ പണ്ടത്തെ കണക്കുള്ള എന്താപറയുന്നത് പണ്ട് വിനോദത്തിന് വേണ്ടിയിട്ട് കണ്ടുകൊണ്ടിരുന്നത് ആണെങ്കിൽ ഇപ്പോൾ അത് സാമ്പത്തിക പരമായിട്ടുള്ള രീതിയിലാണ് പണ്ട് വിനോദത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ആണ് പണ്ടത് അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത് കഥാ മൂല്യങ്ങളും കാര്യങ്ങളുമൊന്നും ഇപ്പോഴത്തെ സിനിമയിലില്ല പണ്ടുള്ള സിനിമകളിൽ കഥയ്ക്കായിരുന്നു കൂടുതൽ അതിനകത്ത് അഭിനയിക്കുന്നവരായാലും അവർക്കെല്ലാം ആ ക്യാരക്റ്റേഴ്സിനോട് ഒരുപാട് ഇത് തോന്നിയതാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരഭിനയിച്ച് ഫലിപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും അത് നമ്മളുടെ മുന്നിൽ നമ്മളുടെ വീട്ടിലുള്ള ഒരാളാണ് എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ആ സിനിമ കണ്ടു തീർക്കുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊരു കഥാമൂല്യം നമ്മളുടെ സിനിമകളിലില്ല ഒന്നാമത്തേത് അങ്ങനെയാണ് പിന്നെ എന്ന് പറയുന്നത് കഥകളുള്ള സിനിമകളും നല്ല രീതിയിലും ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നില്ല എന്ന് പറയുന്നില്ല ഇപ്പോൾ എല്ലാവരും അവരെ അവരുടെ സിനിമ കണ്ട് അതൊരു ഒരു ഒരു നേരത്തെ ഒരൂ കാഴ്ചയ്ക്കകത്തോട്ട് മാത്രമായിട്ടാണ് മറ്റേ പഴയ സിനികളെന്ന് വെച്ചാൽ നമുക്ക് എത്ര കണ്ടാലും മടുപ്പിക്കാത്ത സിനിമകളായിരുന്നു പണ്ടത്തെ സിനിമകൾ അതിലെ ഡാൻസ് ആയാലും പാട്ടായാലും കഥകളായാലും അതിനകത്ത് ഈവൻ ഓരോ ക്യാരക്റ്റേഴ്സിനെ പോലും നമുക്ക് ഇപ്പളും ഓർമയുണ്ട് പക്ഷെ അന്നൊന്നും അങ്ങനെ അല്ലായിരുന്നു ഇന്നത്തെ കാലത്ത് പോലെ അല്ലായിരുന്നു അന്നത്തേത് അന്ന് നമ്മൾ കണ്ട ഓരോ സിനിമകളും ഇന്നും നമ്മടെ മനസ്സിലുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സിനിമകൾ ഒരു വട്ടം കണ്ടാൽ പിന്നെ നമുക്ക് കാണാൻ തോന്നില്ല അതുപോലെയാണ് അതുകൊണ്ടാണ് പക്ഷെ സിനിമ സിനിമകൾ ഇഷ്ടമല്ല എന്ന് ആൾക്കാർ പറയുന്നില്ല ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇന്ത്യയിൽ എന്താ വിനോദത്തിനായാലും ഏറ്റവും കൂടുതൽ കാണുന്നത് എല്ലാവരും സിനിമ തന്നെയാണ്